ഇന്ത്യയിലേ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലേ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം സി പി എമ്മിലേ ഉയർന്ന നേതാവായ ഇപ്പത്തേ മുഖ്യമന്ത്രി കൂടിയായ സഖാവ് പിണറായി വിജയനാണ് എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാ ആ രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരം ഭരിക്കുമ്പോൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളുടെ ഒരു മെമ്പറായിട്ട് എൻ്റെ വാർഡിൽ മത്സരിക്കാൻ മത്സരിച്ചൊരു മെമ്പറകാൻ എനിക്കും സാധിച്ചു എന്നതും ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷം ചോയി സന്തോഷമുണ്ട് സഖാവ് പിണറായി വിജയനേ നേരിൽക്കാണുകയാണെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് ചോദിക്കണം